ഓ പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ട്ടമാണ് കേൾക്കാന് ഏതൊക്കെ പാട്ടു കേൾക്കുമെന്ന് ചോദിച്ചാല് എനിക്ക് കൂ ഹിന്ദി പാട്ടുകളും മലയാളം പാട്ടുകളും ഒരുപോലെ എനിക്കിഷ്ട്ടാണ് അതുപോലെ തമിഴ് പാട്ടൊക്കെ ഇഷ്ട്ടമാണ് ഞാൻ കേൾക്കുന്നത് തന്നെ ഭയങ്കര റൊമാന്റിക് സോങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ട്ടാണ് അതുപോലെ ഇഷ്ട്ടപെട്ട ഗായകരെന്നു വച്ചാൽ എനക്ക് ചിത്ര ചിത്ര ചേച്ചിയെ ഭയങ്കര ഇഷ്ട്ടാണ് അതുപോലെ സ്റ്റി സ്റ്റീഫൻ ഗായക ഗായകനല്ലങ്കിലൊരു മ്യൂസിക്കൽകാ മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട ആള സ്റ്റീഫനെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അതുപോലെ തന്നെ നജീം അർഷാദ് അതുപോലെ മൃദുല ഇവരേക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട്ടാണ് അതുപോലെ ഇപ്പ ഇപ്പൊഴുള്ള റിയാലിറ്റി ഷോയിലെ ഓരോ പാ ഓരോ കണ്ടസ്റ്റൻസ് പാടുന്ന പാട്ടുകളൊക്കെ കേട്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ട്ടാണ് പ്രാദേശിക പാട്ടുകളെക്കുറിച്ച് പറയുന്നു വച്ചാല് ഇപ്പഴത്തെ ഈ ജനറേഷനില് കൂടുതൽ പ്രാദേശിക പാട്ടുകളാണല്ലോ കൂടുതൽ കേൾക്കുന്നെ ഹിന്ദി തമിഴ് എന്നിവക്കെയാണല്ലോ കൂടുതലിഷ്ട്ടം നമ്മുടെ അച്ഛൻമാരും അമ്മമാരൊക്കെ പണ്ടു മുതലെ മലയാളം പണ്ടുള്ള മലയാളം പാട്ടുകളൊക്കെ എന്നാലും ഞങ്ങ ഞങ്ങളെ പോലത്തവർക്കിപ്പോൾ കൂടുതലായിട്ട് ഇഷ്ട്ടം ഹിന്ദി പാട്ട് ഹിന്ദിയിലെ അർജിത് സിങ്ങൊക്കെ പാടുന്നത് അടിപൊളി പാട്ടല്ലെ കൂടുതൽ മലയാളി മലയാള പ മലയാള ഗായകരെക്കാട്ടും കൂടുതൽ അറിയുന്നതിപ്പോൾ ഹിന്ദി ഗായകരൊക്കെയാണ്